എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനാണ് വാഷിംഗ് മെഷീൻ്റെ ഉപകാരം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് അലക്കാൻ വേണ്ടിയിട്ടാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആദ്യമൊന്നും ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന കണ്ടിട്ടാണ് വാഷിംഗ് മെഷീൻ വാങ്ങിയത് അപ്പോൾ നല്ലൊരു ഉപയോഗമാണ് ഈ പ്രൊഡക്ട് കൊണ്ടുള്ളത് കാരണം എന്ത് വച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കല്ലിലാണ് അലക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ കല്ലിൽ അലക്കുന്നതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറെ നേരം അതിൻ്റെ മുകളിൽ പണിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പം ഒരു ഡ്രസ്സ് ചിലപ്പോൾ നമ്മൾ കുറെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ട് വേണം അലക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കുറെ ടൈം ചിലവഴിക്കുകയും വേണം നമ്മൾക്ക് നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിയത് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രോഡക്ടാണ് നമുക്ക് ഇത് എന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഡ്രസ്സ് ഏതാണോ അത് ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട ഇതും കൂടി ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ അതു തന്നെ അലക്കി ഉണക്കി എല്ലാം റെഡി ആക്കിത്തരും ഇതാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെയൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ